ഇന്നത്തെ കാലത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഒന്നു പറഞ്ഞ് രണ്ടു പറഞ്ഞ് മൂന്നാമത്തെ ഒരു എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ വലിയ കൊലയും കള്ളത്തരങ്ങളും കവർച്ചകളും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പം ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ മുഖ്യ കാരണം ചിലപ്പോൾ ഒരുപക്ഷേ ദാരിദ്ര്യം ആയിരിക്കാം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ മൂലം ആയിരിക്കാം ഇപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാരണം എന്തെന്ന് പറഞ്ഞാലും ആ കുറ്റകൃത്യങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അതിന് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല മാർഗ്ഗം കണ്ടുപിടിക്കണം അതിന് ദാരിദ്ര്യം മൂലം ആണെങ്കിൽ അങ്ങനെ ആൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പം നമുക്ക് നമ്മൾ പഠിപ്പ് ചിലപ്പം നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലി അല്ലെങ്കിൽ തന്നെയും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിലും ഒരു അന്തസ്സായിട്ടുള്ള ജീവിതരീതി എന്ന് പറയുന്നത് മറ്റ് കള്ളത്തരങ്ങൾ കാണിച്ചോ ആരേയെങ്കിലും കുത്തിയും കൊന്നും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ പിടിച്ചു പറിച്ചും ഒക്കെ വാങ്ങിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അന്തസ്സായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുക ഇപ്പം തൊഴിൽ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തൊഴിലുകളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ നമ്മുടെ ആ ഒരു എല്ലാവരും ആ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കി നടന്നിട്ട് കാര്യമില്ല ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാൻ നോക്കണം അങ്ങനെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നങ്ങളും ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ഡിഗ്രി എടുത്ത് അങ്ങേയറ്റം വരെ പഠിച്ചുവരുമ്പോഴത്തേക്കും അവർക്ക് ആ അതനുസരിച്ച് അവരുടെ ആ ഒരു പഠനത്തിനനുസരിച്ച് തൊഴിൽ കിട്ടില്ല അപ്പം തൊഴിലില്ലായ്മ നമുക്ക് പറയാൻ പറ്റില്ല തൊഴിലില്ലായ്മ നമുക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ളൂ അന്തസ്സോടെ ജീവിക്കാനായിട്ട് ഏതെങ്കിലും ഒരു തൊഴിൽ മാന്യമായ തൊഴിലുകൾ കണ്ടെത്തി ജീവിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏത് തൊഴിലിനും അതിൻറേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ തൊഴിലിനും അതിൻറേതായൊരു വിലയുണ്ട് ആ ഒരു ബോധ്യം മനസ്സിലാക്കി ജീവിക്കുക പ്രവർത്തിക്കുക ചെയ്താൽ ഈ കുറേ കുറ്റ കുറ്റകൃത്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിദി വരെ നിയന്ത്രിക്കാൻ പറ്റും